സ്വച്ച് ഭാരത് ഒരു നല്ല ഭാരത് മിഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ വൃത്തിയും വെടുപ്പും സംസ്കാരവും കാത്തുസൂക്ഷിക്കുക എന്നത് വളരെ നല്ല കാര്യമാണ് അതെന്നെ എത്രത്തോളം ബാധിച്ചു എന്ന് ചോദിച്ചാൽ എൻ്റെ എൻ്റെ ഇന്ത്യ ഇന്ത്യ എൻ്റെ രാജ്യമാണ് അതുകൊണ്ടുതന്നെ എൻ്റെ ഇന്ത്യ എത്രത്തോളം വൃത്തിയായിരിക്കുന്നുവോ അത്രത്തോളം എനിക്ക് സന്തോഷം അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഞാനൊരു സാമൂഹിക സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വ്യക്തി ആയത് കൊണ്ട് തന്നെ എനിക്ക് അത് വളരെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് പിന്നെ ശുചിത്വ യജ്ഞത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് സ്കൂളുകളിലും മറ്റും പഠിക്കുമ്പോൾ എൻ എസ് എസ് ന്റെയും മറ്റു ഭാ ടു പല സംഘടനയുടെയും നാട്ടിലെ മറ്റുപല സംഘടനകളുടെയും ഭാഗമായി ശുചിത്വ യജ്ഞത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ പ്രദേശം വളരെ ശുചിത്വം പാലിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രദേശമാണ് എന്നിരുന്നാലും ചിലയിടങ്ങളിൽ ചില ആൾക്കാരുടെ പ്രത്യേകമായ ചില ആൾക്കാരുടെ ശ്രദ്ധക്കുറവു കുറവുകൾ മൂലം ഒരു പ്രദേശം വൃത്തിഹീനമായി മാറുന്നുണ്ട് അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഇനി മുന്നോട്ടുപോകും എല്ലായിടങ്ങളിലുമെന്ന് പറയുന്നില്ല ചിലയിടങ്ങളിൽ മാത്രം മറ്റു പല വ്യക്തികളുടെ ഇടപെടലുകൾ മൂലം എൻ്റെ രാജ്യം അല്ല എൻ്റെ നാട് വളരെ വൃത്തിയായൊരു നാടാണ് മെച്ചപ്പെടുത്തേണ്ടത് ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ചില ആളുകളുടെ അശ്രദ്ധ മാറ്റിയെടുത്ത് വൃത്തിഹീനമാവാതെ സൂക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ഞങ്ങൾ നിറവേറ്റിയിരിക്കും